ആ ചേട്ടാ ഇവിടുത്തെ തെങ്ങിൻ തൈകൾ ഒക്കെ നോക്കാൻ വേണ്ടി വന്നതാ നമുക്ക് ഇവിടെ ആ ഇവിടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടോ അ ആ അ ആ ആ ടി ഇൻടു ടി മതി ആ ആ ആ ഓ അങ്ങനെ ആ ആ എങ്ങനെ ഇപ്പം തൈ ഇല്ല ഇല്ല ആദ്യം ആയിട്ടാ ആ ആ ഓക്കെ ആ ഹ്മ് ഹ്മ് ആ ആ ആ ആ

ഒ ഓ ഓ ഹ്മ് ഹ്മ് ഓ അതെ അതെ ആ ആ ആ ഹ്മ് ഹ്മ് ഓ ഓ ഓ

അതെ അതെ ആ ആ ആ ആ

അപ്പം എന്തായാലും ഇപ്പോൾ കായ്ക്കുമെന്ന് ഉള്ളത് വേഗം ഉറപ്പ് ആണല്ലോ അല്ലേ അതെ അല്ലേ ആ ആ ആ ഇവിടെ അപ്പം എത്രയാ റേറ്റ് വരുന്നത് അതെ ആ നൂറ്റമ്പത് ആ

ആ ഇത് ഇപ്പം അല്ലെ ഹൈറ്റ് ഇപ്പം അധികം ഉണ്ടാവുമോ എങ്ങനെയാ ആ ആ കുറവ് ആയിരിക്കും ഇല്ലെ അത് ഇപ്പം നമുക്ക് ഒരുപാട് ഹൈറ്റ് വേണ്ടെന്ന് ആണ് കാര്യം നമ്മുടെ വീടിനോട് പുറക് വശത്ത് ആണ് നമ്മൾ വെയ്ക്കാൻ ഉദ്ദേശിക്കണത് അപ്പോൾ ആ അപ്പം അവിടെ കുറച്ച് ഹൈറ്റ് കുറവ് ആയതുകൊണ്ട് എന്നാലും വലിയ വെളിച്ചം ഒക്കെ കിട്ടും എന്നാലും അധികം ഹൈറ്റ് വേണ്ടായെന്ന് ആണ് സാധാരണ നമുക്ക് ഏതെങ്കിലും വല്ല നോക്കാം നാടൻ എന്തെങ്കിലും വേണ്ടാ പറഞ്ഞിട്ട് ആണ് നോക്കുന്നത് ആ അതെ അതെ ആ

ആ ആ തേങ്ങ ഒക്കെ നല്ല വലിപ്പം ഉണ്ടാവും അല്ലെ ഹൈറ്റ് കുറവ് ആണെങ്കിലും

ആ ആ അപ്പം എന്തായാലും ഇപ്പം ആ ഓക്കെ അപ്പം എന്തായാലും രണ്ട് തൈ ഇപ്പോൾ എടുക്കാം ആ ആ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നോക്കീട്ട് ഞാൻ ഇപ്പം പിന്നെ എങ്ങനെ വെച്ചാൽ പിന്നെ പറ്റുമെങ്കിൽ ഞാൻ പിന്നെ ഇന്ന് അത് എടുക്കാൻ വരാം ആ ശരി ആ ഞാൻ ചെയ്യാം അതുപോലെ ചെയ്യാം ആ ആ ഓക്കെ അപ്പം എന്തായാലും രണ്ട് എണ്ണം എടുത്ത് വച്ചോ ഞാൻ ഇപ്പം എന്തായാലും ഇപ്പം ഇവിടെ നോക്കീട്ട് ഒന്ന് വരാം ശരി ആ